സെൽഫ് ഹെല്പ് ഗ്രൂപ്പ് ഒക്കെ നല്ലതാണ് കാരണം ഒരു നമുക്കൊരു ഉന്നമനത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ എപ്പോഴും ഒരു ഒരു നല്ലൊരു എൻ്റെ എന്റെ അഭിപ്രായം ചോദിച്ചാൽ നല്ലൊരു വളരെ നല്ല മികച്ച അഭിപ്രായമാണ് എന്ന് ഞാൻ പറയത്തൊള്ളു സ്ത്രീകൾക്ക് വേണ്ടി തൊഴിൽന് എന്തൊക്കെ നല്ല അവസരങ്ങൾ സ്ത്രീകൾക്കൊക്കെ ആക് സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ തൊഴിൽ അനിവാര്യമാണ് കാരണം ജീവിതത്തിൽ അവരൊരുപാട് കാര്യത്തിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർക്കപ്പം ജീവിതത്തിൽ ഒരു

തൊഴിൽ സാധ്യതയൊക്കെ വളരെ വളരെ അനിവാര്യമായ കാര്യമാണ് അപ്പം പിന്നെ നോക്കുവാണെങ്കിൽ എന്തൊക്കെ നല്ല സാധ്യതേം വരാൻ നല്ല സാധ്യതയുള്ളതെന്ന് പറമ്പോഴ്ത്തേനും ഒന്ന് ഒന്നും നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് ഒരു ഒരു ഒരു സ്വന്തമായിട്ട് ഒരു ബിസ്നസ്സ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അതിലൂടെ അവർ അവർക്കൊരു നല്ലൊരു വളർച്ചയായിരിക്കും അതിലൂടെ അവർക്ക് അവർക്ക് അവർക്ക് അവരുടെതായ രീതിയിൽ അവർക്ക് ഒരു കുറച്ച് തുക കിട്ടുകയും ആ തുക കൊണ്ട് അവരവരുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ദിനം ദിനം ദിനത്തിലെ കുറെ കാര്യങ്ങൾ ഓടിച്ച് കൊണ്ട് പോകാനും സാധിക്കുകയും ചെയ്യും കാരണം ഒരു ഒരു പുരുഷൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട കാര്യം അവർക്ക് വരേണ്ട കാര്യം വരേണ്ട കാര്യമില്ല കാരണം അവർക്കും അവരുടെതായ ഒരു വ്യക്തിത്വവും വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വം നിലനിറുക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ഒരു ഒരു ജോലി എപ്പോഴും അനിവാര്യമായ കാര്യമുണ്ട് തൊഴിൽ എപ്പോഴും നല്ലതാണ് സ്രീകൾക്ക് തൊഴിൽ വളരെ വളരെ അനിവാര്യമായ കാര്യമാണ് സെൽഫ് ഹെല്പ് ഗ്രൂപ്പ് അതിനെ ഹെല്പ് ചെയ്യുന്ന സഹായിക്കുന്നുണ്ടെങ്കിലത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്രീകൾക്ക് തൊഴിൽ വളരെ സാധ്യത വളരെ നല്ല ഒരു കാര്യമാണ് സ്രീകൾക്ക് തൊഴിൽ അനിവാര്യമാണ് സ്ത്രീകൾക്ക് തൊഴിൽ വേണവും താനും സ്ത്രീകൾക്ക് തൊഴിൽ വേണ്ടി എന്തൊക്കെ നല്ല സാധ്യതകളുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽന് പല പല സാധ്യതകളുണ്ട് ഒന്നെന്ന് പറയുന്നത് അവർക്ക് അവരുടെ വീടുകളിലിരുന്ന് തൊഴിൽ ചെയ്യാം വീടുകളിലിപ്പോൾ ഇരുന്ന് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അവർ പുറത്ത് പോയി പല പല തദ്ദേശ സ്ഥാപനങ്ങളിൽ വർക്ക് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം അതിനോടൊപ്പം തന്നെ അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് ഉണ്ടാക്കിയ ഞാൻ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് പോയി വിൽക്കാൻ വിറ്റ് അതിന് അതിന് വേണ്ടി പണം കണ്ടെത്താൻ പറ്റും ഒരു കുറെ തൊഴിൽ മാർ സാധ്യതകളുണ്ട് കാരണം തൊഴിൽ എല്ലാം തൊഴിൽ എല്ലായിടത്തും ഉണ്ട് ആ തൊഴിൽ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നമുക്ക് പാലിച്ചാൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും അപ്പം തൊഴിൽ കണ്ടെത്താൻ എല്ലാ സ്ത്രീകളും പരിശ്രമിക്കുക എന്നതാണ് ഞാൻ അവിശ്വസിക്കുന്ന കാരണം തൊഴിൽ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പമായിരിക്കും കാരണം ജീവിതത്തിൽ തൊഴിലെന്ന് പറയുന്നത് ഞാനി ഏറ്റോം വലിയൊരു പ്രാധാന്യം ഉണ്ട് കാരണം തൊഴിൽ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ പല പല കാല പല കാര്യത്തിനും ചൂഷണം ചൂഷണം നേരിടുന്നുണ്ട് അപ്പം ആ ചൂഷ്ണത്തെ മറികടക്കാൻ ഇതിന് സാധിക്കും